ആ ഹലോ മ്മ് മ്മ് ആ ഹ ഹ എടുത്ത് കുറേ നാളായി ആ ആ അത് പുതുക്കണം പുതുക്കണം പുതുക്കണം പുതുക്കണം പുതുക്കണം ആ ആ ആ അ അതിന് അത് ആവശ്യം ഉള്ള സാധനങ്ങൾ പഴയ കാർഡ് പിന്നെ ആ ഹാ മ്മ് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഇത് അല്ലാ വെള്ള ഇത് റേഷൻ കാർഡിൻ്റെ കോപ്പി പോരെ ആ ആ റേഷൻ കാർഡിൻ്റെ കോപ്പി ആ ആ അ ശരി ശരി ശരി

പാൻ കാർഡ് ഇല്ല മ്മ് മ്മ്

ആ ഉണ്ട് ഉണ്ട് ഓട്ട് ൻ്റെ ഇത് കാർഡ് ഉണ്ട് പിന്നെ അ ആ ശരി ശരി ശരി ശരി

ഏ ഇല്ല ഇല്ല മ്മ് പിന്നെ എ അത് നല്ല അഭിപ്രായം നല്ല അഭിപ്രായം ആ ഓക്കെ പിന്നെ അതുപിന്നെ അ അ ശരി ശരി ശരി ശരി ശരി

ഇപ്പോൾ സംശയം ഒന്നും ഇല്ല ആ അറിയാം അറിയാം ആ ആ ആ മ്മ് മ്മ് മ്മ് മ്മ് മ്മ് ശരി എവിടെ പോയതാടി കയ്യെ അഴുക്കെല്ലാം പറ്റിയെ ഏ എന്നാ കയ്യേല് എ അപ്പ വരുമ്പത്തിന് അപ്പ